ഈ ഡെങ്കിപ്പനി മലേറിയ ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൊതുകിൻ്റെ പെരുകൽ കൊതുക് പെറ്റ് പെരുകി നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ നമ്മളൊന്ന് ഇരിക്കുന്ന സ്ഥലത്തേക്കും വരാണ്ടിരിക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാറ് അപ്പം അതിനായിട്ട് ആദ്യമൊക്കെയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു സമയത്ത് കേട്ടോ ഇപ്പോഴില്ലയെന്നാണ് എൻ്റൊരു വിശ്വാസം പിന്നെ എന്തൊരു കീടനാശിനിയൊക്കെ തളിക്കുമായിരുന്നു നമ്മുടെ പറമ്പിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ അപ്പം ഈ കൊതുകൊക്കെ കൊതുകിൻ്റെ മു മു മുട്ടകളൊക്കെ ലാർവകളൊക്കെ ചത്തു പോകുമെന്നാണ് പറയാറ് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഒരു നമ്മൾ എവിടെയാണോ നമ്മൾ കൂടുതൽ സമയം സ്പെൻ്റ് ചെയ്യുന്നത് വീട്ടിലാണെങ്കിലും നമ്മുടെ വീടിൻ്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക വെള്ളമൊന്നും അധികം കെട്ടി കിടക്കാണ്ട് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിലൊന്നും വെള്ളം ഇല്ലയെന്ന് ജസ്റ്റൊന്ന് തോട്ടത്തിൽ കൂടിയും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൂടിയൊക്കെ ഒന്ന് നമ്മൾ കണ്ണോടിച്ചാൽ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വെള്ളം അങ്ങനെ എവിടെയെങ്കിലും കെട്ടികിടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതൊന്ന് വൃത്തിയാക്കുക അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മളിതിന് വേണ്ടി ചെയ്യേണ്ടത്